ഇപ്പോൾ എൻ്റെ എൻ്റെ സഹോദരിയെക്കുറിച്ച് പറയാനാണെങ്കിൽ അവളിപ്പോൾ പി പി എച്ച് ഡീക്കുള്ള എക്സാമിന് വേണ്ടി പ്രീപ്രേഷനാണ് അതായത് അവളിപ്പോൾ എം എസ് സി കഴിഞ്ഞു ബി എസ്സി കഴിഞ്ഞു പിന്നെ എം എസ്സി കഴിഞ്ഞു ഇപ്പോൾ പി എച്ച് ഡിക്ക് നെറ്റ് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള ഒരു പഠിച്ച് കൊണ്ടിരിക്കുകയാണ് ഒരു കോച്ചിങ്ങിന് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ അഭിപ്രായത്തിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് എത്രത്തോളം പഠിക്കാനാഗ്രഹം ഉണ്ടോ നമ്മളത്രത്തോളം പഠിക്കണം പഠിപ്പിക്കണമെന്നാണ് അവർക്ക് എത്രത്തോളം പറ്റുമോ അത്രയും നമ്മളവരെ പഠിപ്പിക്കും അതിലിപ്പോൾ എന്താ പറയുക അവരിനി അതുകൊണ്ട് എന്ത് ചെയ്യും അങ്ങനെയുള്ള ചിന്ത ഒന്നും വേണ്ട അവർക്ക് അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ട് പോകാൻ അവർക്ക് ആഗ്രഹങ്ങളും അവരുടേതായ ഇഷ്ടങ്ങളൊക്കെയുണ്ടാകും നമ്മളത് എന്തിനാണ് വെറുതെ അതില് കൈ കടത്തി വെറുതെ നശിപ്പിച്ച് ഇതാക്കേണ്ട ആവശ്യം അവര് പഠിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവർക്ക് എന്താണോ ആഗ്രഹം അതവര് ചെയ്തോട്ടെ കല്യാണം കഴിച്ച് പോയിക്കഴിഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങള് പിന്നെ നമുക്ക് അതിൽ കൂടുതൽ ഇൻ്റർഫിയറ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇപ്പോഴത്തെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ നമുക്ക് അവരെ കൂടുതലും എത്രത്തോളം പഠിപ്പിക്കാനവർക്ക് ആഗ്രഹം ഉണ്ടോ അത്രത്തോളം നമുക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൽ ആ ഇപ്പോൾ എന്താ പറയുക ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ചില സമയത്ത് അതെങ്ങനെ എൻ്റെ ആഗ്രഹമാണ് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ഇപ്പോൾ എല്ലാവർക്കും വരണമെന്നില്ല ചില ആൾക്കാര് പറയും അവര് പഠിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങള് വരുമ്പോൾ നമുക്കതിന് മറുപടി ഇല്ല കാരണം അത് അവരുടെ അവരുടേതായ കാര്യങ്ങളൊക്കെയാണ് നമുക്കവരോട് പറയാനേ പറ്റുകയുളളൂ അവര് പഠിച്ചോട്ടെ പഠിക്കുമ്പോൾ ആകുമ്പോഴേക്ക് കുറച്ച് ഫ്രീ ആയിട്ട് കാര്യങ്ങളവർക്ക് ചെയ്യാൻ പറ്റുകയുളളൂ അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫ് വേറേ രീതിയിലേക്ക് മാറും ഓട്ടോമാറ്റിക്ക് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു ഫാമിലി ആയി പിന്നെ അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് കാലം എത്രത്തോളം പഠിക്കാൻ പറ്റുന്നോ അത്രത്തോളം അവർക്ക് മൈൻഡ് സെറ്റും ഫ്രീ മൈൻഡ് അവർക്ക് ഫ്രീ ആയിരിക്കും പിന്നെ അത്ര സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ച് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനത്തെയൊക്കെ ഒരു ടൈമായിരിക്കും അപ്പോൾ എത്രത്തോളം അവർക്ക് പഠിക്കാൻ പറ്റണോ അത്രത്തോളം പഠിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം